എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ചായ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് രാവിലെയും വൈകിട്ടും അവർക്ക് ഓരോരുത്തർക്കും ചായ നിർബന്ധവുമാണ് ഞാൻ വീട്ടിൽ ചായ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നു വെച്ചാൽ നമ്മൾ മൂന്ന് പേരാണ് വീട്ടിലുള്ളത് ആദ്യമായി ചായപ്പാത്രം എടുത്ത് അതിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കും ശേഷം ഗ്യാസ് കത്തിച്ച് തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് അതിനെ തിളപ്പിക്കും തിളപ്പിച്ച ശേഷം തേയില ഇടും ഞങ്ങളിവിടെ ഒരു സ്പൂൺ തേയിലയാണ് ഇടുന്നത് ഒരു ചെറിയ സ്പൂണാണ് അതിനുശേഷം പഞ്ചസാരയിട്ട് പഞ്ചസാര ഒന്നര ഇടും ഇട്ടു തിളപ്പിച്ച ശേഷം ഞങ്ങൾ ഒരു ഏലയ്ക്ക നല്ല രീതിയ്ക്ക് പൊടിച്ച് അതിലോട്ടിടും അത് എന്തിനാണെന്നു വെച്ചാൽ നല്ല മണവും പിന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും അതിനുശേഷം നമ്മൾ തൊണ്ടയ്ക്ക് ഒക്കെ ഇച്ചിരി നല്ല ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇഞ്ചി ഒരു ഇച്ചിരി ഇഞ്ചി ചതച്ച് അതും കൂടെ അതിലിട്ട് നല്ല രീതിയ്ക്ക് തിളപ്പിക്കും തിളപ്പിച്ചേനു ശേഷം ഞങ്ങൾ ഒരു കപ്പ് പാൽ ഒരു കപ്പ് പാൽ അതിലോട്ട് ഒഴിക്കും ഒഴിച്ചതിനു ശേഷം അത് ആദ്യം ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് തിളപ്പിക്കും പിന്നെ ഹൈ ഫ്ലെയിമിൽ ആക്കി നല്ല രീതിയ്ക്ക് തിളപ്പിച്ച് എടുത്തതിനു ശേഷം അത് നല്ല രീതിയ്ക്ക് തിളച്ചു വരുമ്പം തീ ഓഫ് ചെയ്ത് അതു വേറൊരു അടപ്പിലോട്ട് ഒഴിച്ച് വീട്ടിലെ എല്ലാവർക്കും സെർവ് ചെയ്യാറുണ്ട് ഇങ്ങനെയാണ് ഞങ്ങളെ വീട്ടിൽ ചായ ഉണ്ടാക്കുന്നത്